അതെ അതെ അതെ അതിനെന്താണ് ഉണ്ടാക്കാം എന്നത്തേക്കെത്തണം എന്താണ് പരിപാടി എന്തൊക്കെയാണ്

മ് ആ ശരി ശരി എന്നത്തേക്ക് എന്നത്തേക്കാണ് ഇത് വരേണ്ടത് തീർക്കേണ്ടത് എന്നത്തേക്കൊക്കെയാണ് ഏകദേശം ആ ഈ സാധനങ്ങളൊക്കെ എടുത്തുതരികയാണോ അതോ ഞാന് തന്നെയെടുക്കുകയാണോ അപ്പം അപ്പോള് വയറും കാര്യങ്ങളുമൊക്കെ എന്തായിട്ടാണ് ചെയ്യുന്നത് ആ ശരി ശരി ആയിക്കോട്ടെ ആ അപ്പോള് നല്ല ഇപ്പം ഏകദേശമൊരു ഏ ആ ശരി ശരി ശരി ആ അപ്പോള് ഞാൻ വന്ന് വീട്ടിലൊന്ന് വരട്ടെ ആ വീട്ടില് വന്ന് കണ്ടിട്ട് അതോ അതോ ആ അത് എന്നിട്ട് എന്നിട്ട് ഒന്ന് സംസാരിക്കാം ആ അപ്പോള് ഏകദേശം ഒരു നമുക്ക് നല്ല നല്ല കടയില് നിന്നെടുത്ത് നല്ല വയറും മറ്റ് കാര്യങ്ങളുമൊക്കെ എടുത്ത് അപ്പോള് നിങ്ങള് കുറേ സാധനങ്ങള് നിങ്ങള് എ സിയും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങള് തന്നെ മേടിക്കുകയില്ലേ സെലക്ട് ചെയ്യുകയില്ലേ ആ ആ ആ

ആ ലേബർ ചാർജൊക്കെ ഞങ്ങള് പറയാം ആ അപ്പോള് ഞാൻ വീട്ടില് വന്നതിന് ശേഷം മതിയല്ലോ ഞാന് വീട്ടില് വന്ന് കണ്ടതിന് ശേഷമൊക്കെ മതിയല്ലോ

ആ അത് ആ എല്ലാം നോക്കി എല്ലാം നല്ല നല്ല നല്ല മെച്ചമുള്ള സാധനങ്ങള് ഇട്ട് ചെയ്യാം

പണിക്കാര് പണിക്കാരൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കുഴപ്പമൊന്നുമില്ല അതെല്ലാം കൃത്യമായിട്ട് ഞങ്ങള് റെഡിയാക്കിത്തന്നുകൊള്ളാം

ആകും നമ്മള് താമസിക്കാതെ പെട്ടെന്ന് തീർത്തുതരാം കല്യാണാവശ്യമല്ലേ അപ്പം പെട്ടെന്ന് കൈകാര്യം ചെയ്തുതരാം ആ ശരി എന്നാല് ആ ആ ആ ശരി ഞങ്ങള് പെട്ടെന്ന് തീർത്തുതരാം എത്രയും വേഗം തീർത്തുതരാം ആ ശരി ശരി അപ്പോള് എനിക്ക് ധൃതിയുണ്ട് ഒരു പരിപാടിക്ക് പോകണം അത്യാവശ്യമായിട്ട് പോവുകയാണ് എന്താണ് പറഞ്ഞുകൊള്ളൂ ആ എല്ലാ സാധനവും നമ്മുടെ കയ്യില് കാണും ഒന്നും ഒന്നും ഒന്നും ഒന്നും കുഴപ്പമില്ല ഓ എല്ലാ സാധനവും ഞങ്ങളുടെ കയ്യിലുണ്ട് എല്ലാ സാധനവും ഞങ്ങളുടെ കയ്യിലുണ്ട് ഒന്നിനും നിർബന്ധം അല്ലയല്ല നിങ്ങള് നിങ്ങള് കാണണം വീട്ടില് കാണണം നമുക്ക് ഇത്തിരി കാശിനൊക്കെ ആവശ്യമുണ്ട് ഇത്തിരികാശ് അഡ്വാൻസൊക്കെ വേണം

ആ രണ്ടു ദിവസത്തിനകം എത്തിയേക്കാം ആ ആ ആ ആ ശരി ശരി ആയിക്കോട്ടെ ആ ശരി ആ മതി മതി മതി കുഴപ്പമൊന്നും ഇല്ല ആ ശരി ഉം ശരി എന്നാല് ശരി